ഞാനിവിടെ കരുവാറ്റായില്നിന്നും ആലപ്പുഴ വഴി എറണാകുളം എറണാകുളം വഴി ബാംഗ്ലൂര്ക്ക് പോയി ഒരു നാല് ദിവസത്തെ യാത്ര ചെയ്ത് തിരിച്ച് വരാന് വേണ്ടിയിട്ട് അവിടുത്തെ ബാംഗ്ലൂര് വിനോദസ സഞ്ചാരകേന്ദ്രങ്ങളൊക്കെ കണ്ട് ഒരു നാല് ദിവസമെടുത്ത് തിരിച്ച് വരാന് ഞാനിവിടുന്ന് ശനിയാഴ്ച പോയി ചൊവ്വാഴ്ച തിരിച്ച് വരത്തക്ക രീതിയില് പോകാന് വേണ്ടിയിട്ട് ഉള്ള ആ യാത്രയില് ഒരു കിലോമീറ്ററിന് എത്ര രൂപ വെച്ച് ആകുവെന്ന് എനിക്ക് ഒന്ന് പറഞ്ഞ് തരാമോ